എഡിറ്റേഴ്സ് കോളം വായിക്കാൻ എനിക്ക് വളരെ അധികം താല്പര്യമുണ്ട് കരണമെന്താന്നുവെച്ചാൽ സമകാലീനമായ കാരണങ്ങളാൽ അത് എഴുതുന്ന ഓരോ അന്നന്നത്തെ വിശേഷങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് വിപുലീകരിച്ച് വായിക്കാൻ എഡിറ്റേഴ്സ് കോളത്തിൽ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഒരു പത്രം കിട്ടുകയാണെങ്കിൽ എല്ലാം വായിച്ചതിന് ശേഷം എഡിറ്റർ കോളം വിശദമായിട്ട് ഞാൻ വായിക്കാറുണ്ട് അതാണതിൻ്റെ പ്രത്യേകത ഓരോ ദി ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ആഴ്ച്ചയിലെയും പ്രത്യേക ഓരോ സബ്ജക്റ്റിനെ പറ്റിയും സമകാലീകമായിട്ട് അതില് വിശദികരിക്കുന്നുണ്ട് അത് വായിച്ച് എല്ലാ കാര്യങ്ങളും അപ്പപ്പോൾ മനസിലാക്കി വയ്ക്കാൻ എഡിറ്റേഴ്സ് കോളം വളരെ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ പത്രത്തിലെ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ വായിക്കാറുണ്ട് എന്നും പത്രപാരായണം നടത്താറുണ്ട് എന്നും വായിക്കും രാവിലെ ഫ്രണ്ട് പേജായാലും ലാസ്റ്റ് പേജായാലും ഒക്കെ ഉണ്ട് എന്നാലും ഈ ഒര് കോളത്തിനോട് പ്രത്യേകമൊരു താല്പര്യമുണ്ട് കുറെ കൂ കൂടുതൽ കാര്യം രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങള് എല്ലാം അതിൽ നിന്ന് മനസിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു അതാണ് അതിൻ്റെ പ്രത്യേകത അങ്ങനെ പത്രമായിട്ട് നമ്മള് ഏത് ഭാഗം വായിക്കുന്നതിലും കൂടുതല് താല്പര്യം തന്നെയാണ് പത്രത്തിൻ്റെ എല്ലാ വിശേഷങ്ങളും എല്ലാ ഭാഗത്തുനിന്നും അറിയാൻ പറ്റുവല്ലോ അതില് ഒരു ഭാഗം പ്രത്യേകിച്ച് എന്ന്പറ ചോദിക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് ആ ഭാഗമെന്ന് പറയാണ്ട് എല്ലാ ഭാഗത്തിലും അതിൻ്റേതായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അതാണ് വേണ്ടത്